എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനാണെങ്കിൽ നല്ല വെട്ടവും അതിൽ ഏറ്റവും കൂടുതൽ നല്ല തെളിച്ചത്തോടെയാണ് അത് ഇരിക്കുക അതേപോലെത്തന്നെ ഏറ്റവും നല്ലതെന്നു വച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ചന്ദ്രൻ ആണെങ്കിൽ തന്നെ ഏറ്റവും നല്ലത് നമ്മളുടെ ചന്ദ്രൻ ഈ ഓരോ ഓരോ ദിവസവും ഓരോ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതേപോലെത്തന്നെ നമ്മളുടെ ചന്ദ്രനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളെ നോക്കിക്കോണ്ടിരിക്കുമ്പോൾ അതേപോലെ നമ്മൾ നടക്കുമ്പോൾ ചന്ദ്രൻ നമ്മളെ പുറകെ വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക എനിക്ക് അതുകൊണ്ടാണ് ചന്ദ്രനെ ഏറ്റവും കൂടുതൽ നല്ലോണം ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നത് ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ ചന്ദ്രക്കലയും അങ്ങനെ റൗണ്ടായിട്ടൊക്കെ ആയിരിക്കും ഓരോ ദിവസവും ഓരോ രൂപങ്ങളിലായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക ഫുള്ളായിട്ടും ഉണ്ടാവും പകുതിയായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചന്ദ്രൻ കൂടെ വരുകയും അതേപോലെ നമുക്ക് മുകളിൽ ഒളിഞ്ഞാലും അതേപോലെ പുറകിൽ വന്നു നിൽക്കുന്ന അതേപോലെ ഒക്കെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുക ചന്ദ്രൻ അതുകൊണ്ടാണ് ഞാൻ നക്ഷത്രങ്ങളിൽ എനിക്ക് ചന്ദ്രനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നു ഞാൻ പറയാൻ കാരണം